ചേച്ചീയുടെ പഠന കാലഘട്ടത്തെ കുറിച്ചൊന്ന് വിവരിക്കാമോ തീർച്ചയായിട്ടും വിവരിക്കാം ഞാനാദ്യമായിട്ട് ഒന്നാം ക്ലാസ്സ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള സി ജി ബി സ്കൂളിലാണ് ഞങ്ങളുടെ എല്ലാ ഇവിടെ ഞങ്ങളുടെ കുടുംബപരമായി നോക്കുവാണേൽ എല്ലാവരും ആ സ്കൂളിൽ തന്നെയാണ് ഞങ്ങളുടെ ചേട്ടമ്മാരും ചേച്ചിമ്മാരും എല്ലാം ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അവടന്ന് കിട്ടിയ ഫ്രണ്ട്ഷിപ്പാണെൻ്റെ ആദ്യത്തെ സ്കൂൾ കാലഘട്ടത്തിലെ ഫ്രണ്ട്ഷിപ്പെന്ന് പറയുന്നത് അന്ന് പഠിച്ച എൻ്റെ കൂട്ടുകാരെ ഇപ്പഴും എനിക്ക് ഓർ ഓർമ്മയുണ്ട് അവരുമായിട്ട് ഇപ്പോഴും എനിക്ക് കൂട്ടും എല്ലാം ഉണ്ട് പിന്നെ അന്ന് ഒന്നാം ക്ലാസ്സില് പഠിപ്പിച്ച എൻ്റെ ടീച്ചർമ്മാരും ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ച ടീച്ചർമ്മാരുടെ പേരുകളും എല്ലാമെൻ്റെ ഓർമ്മയിലുണ്ട് ഒന്നാം ക്ലാസ്സില് പഠിപ്പിച്ച എൻ്റെ ലിസി ടീച്ചർ ഞങ്ങള് മുറ്റത്തിരുന്ന് പഠിച്ചതും അമ്മ എന്നെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വിളിക്കാൻ വരുന്നതും സ്കൂളില് കൊണ്ടാക്കി അമ്മ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഞാനനുഭവിച്ച ആ വേദന പിന്നീടത് ആലോചിച്ചു നോക്കുമ്പോൾ വളരെ ഒരു ചിരിപ്പിക്കുന്ന സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ രണ്ടാം ക്ലാസ് ഞാൻ എൻ്റെ ഉഷ ടീച്ചറ് അപ് പിന്നെ മൂന്നാം ക്ലാസ്സില് ജിലൂ ടീച്ചറ് നാലാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് നമ്മള് നിത്യവും കണ്ടോണ്ടിരിക്കുന്ന ചില വാക്കുകളാണ് ഇംഗ്ലിഷിലുളതെന്ന് അറിയാം കാറ് ബസ്സ് അങ്ങനെയുള്ള ചില ചില പദങ്ങളാണ് ഞാനാദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് അതിൻ്റെ സ്പെല്ലിംഗും അങ്ങനെയുള്ള കാര്യങ്ങളുമായിരുന്ന് പിന്നെ അഞ്ചാം ക്ലാസ്സുമുതൽ ഏഴാം ക്ലാസ്സുവരെ ഞാൻ പഠിച്ചത് കൊടുവായൂര് സ്കൂളില് എം എം എസ് ബി സ്കൂളെന്ന് പറയുന്നത് അവിടെ വേറൊരു തരത്തിലുള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായിരുന്നത് അവിടെയെത്തിയപ്പോൾ കലാകായികപരമായി ഞാൻ കൂടുതൽ ആക്റ്റീവാകാൻ തുടങ്ങി അഞ്ചാം ക്ലാസ്സില് ഹിന്ദി നമ്മളുടെ ജീവിത ആദ്യം സ്കൂൾ പഠനകാലത്ത് ആദ്യായിട്ട് ഹിന്ദി കടന്ന് വരുവാണ് ആദ്യമായിട്ട് പഠിച്ചത് അതിനു മുമ്പ് തന്നെ എനിക്ക് എൻ്റെ വീട്ടില് ചേച്ചി എനിക്ക് കുറെ വാക്കുകളൊക്കെ എഴുതാനും പറയാനും പഠിപ്പിച്ചു തന്നിരുന്നു ആദ്യമായിട്ട് പിന്നെ എൻ്റെ പേരാണ് പേരെഴുതി കൊടുക്കുന്ന ദിവസം ഞാൻ പോയില്ല പിറ്റേ ദിവസമാണ് എനിക്ക് ഹിന്ദ് ഹിന്ദീലെൻ്റെ പേരെഴുതുന്നത് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് പിറ്റേ ദിവസം പോയി പഠി പഠിച്ചിട്ടാണ് ഞാനെൻ്റെ പേര് ഹിന്ദീലെഴുതാൻ പഠിച്ചത് ആറാം ക്ലാസ്സില് ഞാൻ ആറാം ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ എനിക്ക് സതി ടീച്ചറായിരുന്നു ടീച്ചറ് കാ കലാപരമായും കായികപരമായും നമ്മളെ ഒരുപാട് പരിഭോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടന്നെ ഞങ്ങടെ നാട്ടിലെ ഓണാഘോഷ പരിപാടിക്ക് ഞങ്ങൾ നാടകം ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് അതെ ഞാനിവിടുന്ന് പഠിച്ചുകൊണ്ട് പോയി എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത് അവിടെ യുവജനോത്സവങ്ങൾ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ വരുമ്പം ഞാനവിടെ ചെയ്തിരുന്നു അവിടുന്നാണ് ഒരു വലിയൊരു സ്റ്റേജ് ഞാൻ അഭിമുഖീകരിക്കുന്നത് ഏഴാം ക്ലാസ്സിലും ഇതുതന്നെ തുടർന്നു എഴാം ക്ലാസ്സില് എന്നെ പഠിപ്പിച്ച ടീച്ചറുടെ പേരാണ് പ്രിയ ടീച്ചറ് പ്രിയ ടീച്ചറുടെ പ്രിയ ടീച്ചറും ആ നല്ല സപ്പോർട്ടായിരുന്നു യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കാനും ആനിവേഴ്സറികളിൽ പരിപാടി അവതരിപ്പിക്കാനും എല്ലാം നമ്മളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ എട്ടാം ക്ലാസ് ഹൈസ്കൂൾ തലത്തിലേക്ക് പോയപ്പോഴും കലാപരമായും ഞാൻ ഒരുപാട് പ്രവർത്തികള് ചെയ്തിരുന്നു എട്ടാം ക്ലാസ്സില് ഞാൻ കൊടുവായൂര് തന്നെയുള്ള ജി എച്ച് എസ് എസ് കൊടുവായൂർ സ്കൂളിലാണ് പഠിച്ചത് അവിടെ എട്ടാം ക്ലാസ്സു മുതൽ പത്താം ക്ലാസ്സുവരെ ജി എച് എസ് എസ് കൊടുവായൂർ ഹൈസ്കൂൾ സെക്ഷനില് പഠിച്ചിരുന്നു അവിടെയുള്ള ഫ്രണ്ട്സ് അവിടന്ന് എട്ടാം ക്ലാസ്സു മുതൽ ഇന്നുവരെൻ്റെ കൂടെയുള്ള എനിക്കൊരു ഫ്രണ്ടാണ് എൻ്റെ എൻ്റെ ഡിയറെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറയുന്നത് ലിജി എൻ്റെ എട്ടാം ക്ലാസ്സുമുതൽ ഇന്നുവരെ ഉള്ളയെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് എട്ടാം ക്ലാസ്സില് സയൻസിൻ്റെ വിവിധ രൂപങ്ങളായ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എന്നിവ കടന്നു വന്നു അതെൻ്റെ സയൻസ് ജീവിതത്തില് പുതിയൊരു അനുഭവമായിരുന്നു പിന്നെ എട്ടാം ക്ലാസ്സ് യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കുകയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഇത് തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒൻപതാം ക്ലാസ്സിൽ ഒൻപതാം ക്ലാസ്സോടെ ഞാൻ പുതിയ ടൂഷന് ചേർന്നതും അവിടുത്ത ഫ്രണ്ട്സ് പിന്നെ രാവിലെ നേരത്തെ എണീച്ച് സ്കൂള് സ്കൂളിൽ പോകുന്ന അനുഭവം വളരെ വൈകിയെത്തുന്നതും ട്യൂഷൻ കഴിഞ്ഞ് ക്ഷീണം അതൊക്കെ എൻ്റെ ഓർമയിലും ഇന്ന് ഓർമയിലിന്ന് വളരെയധികം ഓർമയിലുണ്ട് ഉണ്ടായ കാര്യങ്ങളാണ് പത്താം ക്ലാസ് പത്താം ക്ലാസ് എത്തിയപ്പോൾ എനിക്ക് ട്യൂഷൻ വേണ്ടാന്ന് തോന്നുകയും സ്വയം പഠിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായി കുറച്ച് മാർക്ക് കുറയുകയും ചെയ്തിരുന്നു

സ്ഥിരമായുള്ള ബസ്സ് യാത്ര ഇത്രയും വർഷം ഒരുമിച്ചുള്ള ബസ്സ് യാത്ര ബസ്സിലെ യാത്രക്കാര് ബസ്സിലെ ജീവനക്കാര് അവരുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു കുറെ വർഷം നമ്മള് ഒരേ ബസ്സിലും ഒരേ യാത്ര ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ളൊരു അനുഭവം പിന്നീട് മറ്റ് സ്ഥലങ്ങളില് വച്ചവരെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാനും ആ ബസ്സിലെ ജീവനക്കാരായാലും ബസ്സില് യാത്ര ചെയ്യുന്ന യാത്രികരായാലും ഡെയിലി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ പത്താം ക്ലാസ്സങ്ങനെ കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ്സ് വൺ പ്ലസ്സ് ടു പാലക്കാട് ജില്ലയിൽ തന്ന ഏറ്റവും മികച്ച സ്കൂളുകളിൽ അഞ്ച് സ്കൂളുകളായ ഒന്ന് എൻ്റെ ഞാൻ പഠിച്ച കൊടുവായൂർ സ്കൂളാണ് കൊടുവായൂർ സ്കൂളില് പ്ലസ്സ് വൺ പ്ലസ്സ് ടു എൻ്റെ നല്ലൊര് അനുഭവങ്ങളായിരുന്നു എൻ്റെ ഏറ്റവും ഡിയറെസ്റ്റ് ഫ്രണ്ട് തന്നെ ലിജി എൻ്റെ കൂടെയുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം അങ്ങനെ വലിയ താൽപ്പര്യമൊന്നും ഇല്ലാതെ ഞാൻ ജേർണലിസം എടുത്തു പഠിക്കാൻ വളരെ എളുപ്പായിരുന്നു പഠിച്ചു തുടങ്ങുമ്പോഴാണ് മനസിലായത് പഠിക്കാൻ വലിയ കുഴപ്പമൊന്നും ഇല്ല പിന്നെ ജേണലിസം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അങ്ങനെയൊരു വിഷയമുണ്ടായിരുന്നു ആ ആ അപ്പഴാണ് ഞാൻ ഇംഗ്ലീഷില് ഇങ്ങനെയൊക്കെ ആണ് വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യാന്നുള്ള ആ ഒരു വിഷയം തിരഞ്ഞെടുത്തു കൊണ്ടാണ് പല വാക്കുകളും നമ്മള് തെറ്റായിട്ടാണ് ഉച്ചരിക്കുന്നത് എന്നാണ് മനസിലാക്കിയത് സ് എന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിച്ച നസീർ സാറിനെ ഇന്നും ഞാൻ ഓർക്കുന്നു പല വാക്കുകളും എത്ര തെറ്റായിട്ടാണ് നമ്മള് ഉച്ചരിക്കണതെന്ന് പ്രൊനൗൻസെയ്യണതെന്ന് ആ ഒരു വിഷയം പഠിച്ചത് കൊണ്ട് മനസ്സിലായി ജേണലിസം പത്ര പ്രവണ പ പിന്നെ ജേണലിസം പഠിച്ചത് കൊണ്ട് പത്ര പ്രവർത്തനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളും ആദ്യം എറങ്ങിയ പത്രം ചരിത്രാതീത കാലം മുതലുള്ള കാല കാര്യങ്ങള് നമുക്ക് മനസ്സിലാക്കി തൃശൂരിൽ നിന്നെത്തിയ ഒരു ടീച്ചറാണ് ഞങ്ങൾക്ക് ജേണലിസം പഠിപ്പിച്ചത് വളരെയധികം ഈസിയായിട്ട് നമ്മളിലേക്ക് പഠിപ്പിക്കുന്ന രീതി കൊണ്ട് വരുന്നതാണ് ആ ടീച്ചറുടെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനൊരു ആഡ് എഴുതണം എങ്ങനൊരു ന്യൂസെഴുതണം ഒരു ന്യൂസിലെന്തൊക്കെ ഉണ്ടാകണം എന്നൊക്ക നമുക്ക് മനസിലാക്കാൻ ആ ഒരു ഈ ഒരു പഠനരീതിയെ കൊണ്ടെനിക്ക് മനസിലാക്കാൻ തുടങ്ങി പിന്നൊരു വാർത്ത വായിക്കുമ്പം ഞാൻ എന്തൊക്കെ ആ ഫസ്റ്റ് കോളത്തില് എന്തൊക്കെയുണ്ടാവണം അതില് എന്തൊക്കെ ഉണ്ടാകണം എന്ന് നമ്മുക്കാ ജേണലിസം പഠിച്ചതുകൊണ്ടും മനസിലാക്കിയതുകൊണ്ടും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എത്ര കോളം വാർത്തയുണ്ട് എന്തൊക്കെ പത്രപ്രവർത്തനത്തില് പാടില്ല എന്നുള്ളതൊക്കെ നമ്മുക്കറിയാൻ പറ്റും പിന്നെ പ്ലസ്സ് വൺ പ്ലസ്സ് ടൂ അങ്ങനെ കഴിഞ്ഞു പ്ലസ്സ് ടൂ കഴിഞ്ഞ് ഞാൻ കടന്ന് ചെല്ലുന്നത് പാലക്കാട് പാലക്കാട്ടുകാരുടെ ഏറ്റവും ഇഷ്ട്ടപെട്ട കോളേജുകളിൽ ഒന്നായ നമ്മുടെ സ്വന്തം ചിറ്റൂർ കോളേജാണ് ചിറ്റൂർ കോളേജില് ചിറ്റൂർ കോളേജെന്ന് പറയുന്ന എന്താ പറയുക പുഴയും ആ പുഴയുടെ തീരത്ത് കുറെ ഏക്കറില് മരങ്ങളും പുഴയും ഒരൂ സ എന്താ പറയുക പ്രകൃതി രമണീയമായ കോളേജാണെൻ്റെ ചിറ്റൂർ കോളേജ് ചിറ്റൂർ കോളേജില് അത് നമ്മള് കടന്ന് ചെല്ലുമ്പം തന്നെ അതിൻ്റെ ഏറ്റവും മനോഹരീത തോന്നിക്കുന്നത് മില്ലേനിയം ഗേറ്റാണ് ആ ഗേറ്റ് കടന്ന് ചെല്ലുന്നതും രണ്ടു വശത്തും ഇലന്തിപ്പഴങ്ങളും നടുവിലൂടെ ഒരു റോഡും കടന്ന് ചെല്ലുമ്പം ആദ്യം പിന്നെ യൂക്കാലിസ് മരങ്ങളും കൊണ്ട് അവിസ്മരണീയമാണ് ഞങ്ങളുടെ സ്വന്തം ചിറ്റൂർ കോളേജ് എന്ന് പറയുന്നത് കയറി ചെല്ലുന്നത് ഞാൻ മലയാളമായിരുന്നു മലയാളം ഡിപ്പാർട്മെൻറ് ഞങ്ങള് ആദ്യമുണ്ടായിരുന്ന അവിടെയല്ല പിന്നെ ഞങ്ങള് പഠിച്ചിറങ്ങുമ്പോൾ സ്വന്തമായിട്ടൊരു ബ്ലോക്കൊക്കെയുണ്ടാക്കി പഠിച്ചിറങ്ങുമ്പഴേക്കും ഞങ്ങൾക്ക് സെക്കന്റിയറ് തൊട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്ലോക്കുണ്ടായി അവിടെ ഞങ്ങടെ എച്ച്ഒടി ബീന ടീച്ചർ ബീന ടീച്ചർക്ക് കണ്ണിന് കാഴ്ച് പരിമിതി ഉണ്ടായിട്ടും നല്ലൊരു ഗായിക കൂടിയാണ് ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കുന്ന കാഴ്ച്ച പരിമിതിയുള്ളയാള് എങ്ങന പഠിപ്പിക്കുന്ന ഒരുപാട് സംശയം എനിക്കുണ്ടായിരുന്നു ആദ്യം ഇൻറർവ്യൂവിനു പോയപ്പോൾ അതിനെല്ലാം മാറ്റി നിർത്തി ടീച്ചർ വളരെ മനോഹരമായിട്ട് ക്ലാസ്സെടുത്തു തരുകയും ആ നമ്മളെ മറ്റുള്ള ടീച്ചേഴ്സിനെ പോലെ തന്നെ നമ്മൾ നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും ചെയ്യാൻ ബീന ടീച്ചർക്ക് കഴിഞ്ഞിരുന്നു പിന്നെ രവിചന്ദ്രൻ മാസ്റ്ററ് മാഷ് വളരെ കൂളായിട്ടുള്ളൊരു സാറാണ് നമ്മള് ക്ലാസ്സില് കിടന്നുറങ്ങിയാലും സാറ് പ്രത്യേകിച്ചൊന്നും പറയാൻ പോകുന്നില്ല സാറിൻ്റെ ക്ലാസ്സെപ്പോഴും മിക്സെടായിരുന്നു മറ്റുള്ള വിഷയങ്ങളെടുത്തവരും സെക്കന്റ് ലാങ്ഗ്വേജായി മലയാളം എടുത്തവരും എല്ലാവരും കൂടി മിക്സായിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് വളരെയധികം രസമായിരുന്നു പിന്നെ അഞ്ജന ടീച്ചർ ടീച്ചറമ്മാരിൽ ഏറ്റവും എന്താ യൂത്തായ ടീച്ചർ നമ്മടെ ഒരു വൈബിനനുസരിച്ചുള്ള ഒരു ടീച്ചറൊക്കെയായിരുന്നു അഞ്ജന ടീച്ചറ് പിന്നെ മേഴ്സി ടീച്ചർ മേഴ്സി ടീച്ചർ ഭയ വളരെയധികം വായനശീലവും എല്ലാ ടീച്ചേഴ്സ്മാരും വായനശീലമൊക്കെയുണ്ട് കാര്യങ്ങൾ മനസിലാക്കി തരുകയുമൊക്കെ ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു പിന്നെ അനിൽകുമാർ സാറ് സാറ് സാറ് കുറച്ച് ഗൗരവമാണെങ്കിലും നല്ല രീതിയില് അവര് നമുക്ക് ക്ലാസ്സൊക്കെ എടുത്ത് തരിക പുറത്ത് കാണുമ്പം ആ ഒരു ക്ലാസ്സിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പൊന്നും സാറ് പുറത്തു കാണുമ്പോൾ കാണിക്കില്ല എന്നാലും അകത്ത് അകത്തോട്ട് ക്ലാസ്സിലേക്ക് വരുമ്പം ഭയങ്കര കൂളായിരുന്നു പിന്ന മലയാളം ഡിപ്പാർട്ട്മെന്റ് ആദ്യമായിട്ട് നമ്മള് ഫസ്റ്റിയറില് പോകുമ്പം നമ്മുക്കുണ്ടായ അനുഭവമെന്ന് പറഞ്ഞാൽ റാഗിങ്ങായിരുന്നു റാഗിങ്ങെന്നു വെച്ചാൽ പേരു ചോദിക്കലും പാട്ടുപാടലും പാട്ടു പാടാനൊട്ടുമറിയാത്ത എന്നെക്കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയും തുടർന്ന് എനിക്കേറ്റവും ഇഷ്ടപുള്ള ഇഷ്ടമുള്ള നടനായ മോഹൻലാലിനെ കുറിച്ച് കുറ്റം പറയാൻ പറയുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെന്താണ് ആദ്യ വർഷം നവംബർ ഒന്നിന് മലയാളം ഡിപ്പാർട്ട്മെൻ്റെില് സാരിയുടുത്ത് പോയതും തിരുവാതിര കളിച്ചതും രംഗ പൂജ കളിച്ചതും എല്ലാം വളരെയധികം ഓർമകളിൽ നിൽക്കുന്ന നല്ല അനുഭവങ്ങളാണ്